ഞങ്ങളുടെ ദേശത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത് ഒന്നാണ് പത്രം നമ്മുടെ ദേ ഞങ്ങളുടെ ദേശത്തെ എന്ന് എന്നല്ല എല്ലാ ദേശത്തും ഏറ്റവും കൂടുതൽ പ്രാധാന്യപ്പെട്ട ഒന്നാണ് പത്രം ഈ പത്രം എന്നത് നമുക്ക് പല കാര്യങ്ങൾ അറിയാനും അത് അതനുസരിച്ച് ചെയ്യാനും ഉള്ളൊരു ന്യൂ ജെൻ പ്രതിഭാസമാണ് ഈ നമ്മുടെ നമ്മുടെ ദേശം പ്രദേശത്ത് എന്തും കലാപരമായി എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും എന്ത് ഉണ്ടെങ്കിലും നമ്മൾ അത് അറിയുന്നത് പത്രത്തിലൂടെയാണ് പണ്ടൊക്കെ നമുക്ക് വേറെ കലയായിട്ട് നമുക്ക് വേ ബന്ധപ്പെട്ട വേറെ വാർത്തകളും അതിനെ കുറിച്ചുള്ള വിവരണങ്ങൾ ഒന്നും അറിയാൻ നമുക്ക് വേറെ ഒരു മാധ്യമങ്ങളും ഉണ്ടായിരുന്നില്ല പത്രം തന്നെയാണ് എല്ലാ മനുഷ്യരും ആശ്രയിച്ചിരുന്നത് പത്രത്തിൽ നമുക്ക് ഒരുപാട് സ്പോർട്സ് സിനിമ ആർട്സ് എന്ത് എന്താണേലും നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി തന്നെ വരും നമ്മുടെ സ്കൂളിൻ്റെ എന്തേൽകും ഒരു കലോത്സവം അല്ലെങ്കിൽ നമ്മുടെ ക തിരുവനന്തപുരം അവിടെ എന്തേലും കലയുടെ ആയിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാ ന്യൂസ് നമ്മൾ അറിയുന്നത് പത്രത്തിലൂടെയാണ് അപ്പം നമ്മുടെ പത്രം നമുക്ക് കലാ കലാപരമായ വളർച്ചക്ക് വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് നമുക്ക് പണ്ടൊക്കെ നമുക്ക് ന്യൂസറിയാനും പിന്നെ നമ്മുടെ സിനിമാ ഇതായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ഒരുപാട് ഏതാ സിനിമ എന്താണ് ഷോയ് നമുക്ക് എവിടെയാണ് സിനിമ കാണാൻ കഴിയുക അതെല്ലാം നമ്മൾ അറിയുന്നത് പത്രത്തിലൂടെയാണ് നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് അവർക്കും പത്രം എന്നത് നമുക്ക് വളരെ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നാണ് ഇപ്പം നമ്മുടെ സ്കൂളിൽ ഒരാനുവേ ഒരു പ്രോഗ്രാം നടക്കുമ്പം അതിന്റെ അകത്ത് പിന്നെ വിജയിച്ച കുട്ടികളും അല്ലെങ്കിൽ അതിന്റെ അതിനെക്കുറിച്ചുള്ള എല്ലാം നമുക്ക് അറിയാം എന്നത് പത്രത്തിലൂടെയാണ് പത്രത്തിൽ വളരെ വളരെ മനോഹരമായി തന്നെ അതായി എഴുതിയിരിക്കും എഴുതിയിരിക്കുന്നു നമുക്ക് അത് ഒത്തിരി സന്തോഷം ഉള്ളൊരു കാര്യമാണ് പത്രം നമ്മുടെ ജീവിത വളർച്ചക്ക് വളരെ അധികം പ്രാധാന്യം പെടുന്ന ഒന്നാന്ന് പറയാൻ മറ്റൊരു കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് പുതിയ പുതിയ വാർത്തകൾ എന്നും നമുക്ക് അറിയാൻ കഴിയും അതിപ്പം കല കലയോ സാഹിത്യമോ എന്ത് ആണെങ്കിലും നമുക്ക് അത് പുത്തനോടെ തന്നെ നമുക്ക് അത് വായനക്കാരിൽ എത്തുന്നു പണ്ടത്തെ കുട്ടികൾ ഈ പ്രോഗ്രാമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളാ നോക്കുന്നതും ഞങ്ങളെ പോലയുള്ള ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ഒക്കെ നമുക്ക് വേറെ മാധ്യമങ്ങൾ ഒന്നും അധികാ നമുക്ക് പറ്റില്ല അപ്പം രാവിലെ നമുക്ക് എന്ത് ഏത് സ്കൂളിലാണ് നമുക്ക് ഏറ്റവും മികച്ച കല കലക്ക് അവാ സമ്മാനം കിട്ടിയിരിക്കുന്നത് ഡാൻസിന് പാട്ടിന് മിമിക്രിക്ക് അങ്ങനെ എന്ത് പ്രോഗ്രാമിനും ഏത് സ്കൂളിനാണ് കിട്ടിയിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് ഒരേ ഒരു മാർഗ്ഗം ഈ പത്രമാണ് നമ്മുടെ കലാപരമായ എല്ലാ കാര്യങ്ങളും വളരെ അധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഈ പത്രം പത്രത്തിൽ എഴുതുന്ന കാര്യങ്ങൾ എല്ലാം സത്യമാണ് ഓരോ ജില്ലേനെക്കുറിച്ചും ഇപ്പം നമ്മുടെ അടുത്തിടക്ക് വന്ന നമ്മുടെ ദിവ്യാ ഉണ്ണീടെ പ്രോഗ്രാം അത്രയും വർഷം ലക്ഷ കണക്കിന് കുട്ടികൾ അയിന്റ്റാത്ത് മത്സരിച്ച് ഭരതനാട്യം മോഹിനിയാട്ടം അല്ല പ്രോഗ്രാം അവതരിപ്പിച്ച് അത് വളരെ വാർത്തയായത് പത്രത്തിലൂടെയാണ് അങ്ങനെ ഒരുപാട് കലയായിട്ട് ബന്ധപ്പെട്ടൊത്തിരി കാര്യങ്ങൾ നമ്മൾ പത്രത്തീന്ന് വായിച്ച് അറിയുന്നുണ്ട് അതുപോലെ സ്പോർട്സ് സ്പോർട്സിലെ നമുക്ക് വിശദമായ എല്ലാ വിവരങ്ങളും അറിയുന്നതും പത്രത്തിൽ നിന്നാണ് സ്പോർട്സിൻ്റെ തന്നതായ എല്ലാ പ് എല്ലാ പരിവർത്തനങ്ങളും നമ്മൾ പത്രത്തിൽ നിന്നറിയുന്നു സ്പോർട്സ് ആർട്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് പുത്തനായിട്ടുള്ള അറിവിൽ നമുക്ക് പറഞ്ഞു തരുന്നതും ഈ പത്രമാണ് പിന്നെ നമ്മുടെ പ്രദേശത്തെ നമുക്ക് എന്തെങ്കിലും പുത്തൻ പുത്തൻ അനുഭവങ്ങളോ എന്തെങ്കിലോ എന്ത് അറിഞ്ഞ് ഉണ്ടെങ്കിലും നമ്മൾ അത് പത്രത്തിലൂടെ അറിയും പിന്നെ ഫാ ഒരു പുതിയ തലമുറ തലമുറ വളർന്ന് വന്നോണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് അവർക്ക്ടെ ഉള്ളിലുള്ള കഴിവുകൾ എല്ലാം പ്രകടമാക്കുന്നത് സ് ഒരു സ്റ്റേജിലാണ് ആ സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അത് മാ സ്റ്റേജ് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വാർത്തകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് ഈ പത്രത്തിലൂടെയാണ് അതിലൊരുപാട് സന്തോഷം ഉണ്ട് പത്രം എന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ കഴിഞ്ഞിരിക്കുന്നു അതിപ്പം മുന്നോട്ട് ഉള്ളൊരു തലമുറയ്ക്കും പത്രം തന്നെയാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്കും തോന്നുന്നത് കലാപരമായി എല്ലാ വളർച്ചയ്ക്കും പത്രം പത്രം വളരെ ഏറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിലൊരുപാട് സന്തോഷോമുണ്ട്